മലയാള ഭാഷയെന്നു പറയുമ്പോൾ ഒരുപാട് അക്ഷരങ്ങള് ഉള്ള ഒരു ഒരു ഭാഷയാണ് മലയാളം എന്നു പറയുമ്പോൾ സ്വരാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് അങ്ങനെ ഒരുപാട് അക്ഷരങ്ങള് ചേര്ന്നൊരു ഭാഷയാണ് മലയാളം തീര്ച്ചയായും മലയാളം പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അല്ലെങ്കില് പുറത്തു നിന്ന് ഒരു വന്ന ഒരാള്ക്ക് അല്ലെങ്കില് വേറൊരു രാജ്യക്കാരന് മലയാളം പഠിക്കുക എന്ന് പറയണത് തീര്ച്ചയായും നല്ല ബുദ്ധിമുട്ടേറിയ കാര്യ കാര്യമാണ് പിന്നീട് മലയാളം പത്രങ്ങള് വായിച്ച് മറ്റു പുസ്തകങ്ങളും നോവലുകളൊക്കെ വായിച്ചാണ് മലയാള ഭാഷ കുറച്ചുകൂടി മെച്ചപ്പെടുത്താന് സാധിക്കുന്നത് അപ്പോൾ നമ്മള് പൊതുവായിട്ട് സംഭാഷണങ്ങള് അല്ലെങ്കില് ദൈനദിന ജീവിതത്തില് നമ്മളൊരുപാട് സംഭാഷണങ്ങളില് ഏര്പ്പെടുന്നത് കൊണ്ട് നമ്മള് മലയാളത്തിലെ പല ഭാഷകള് മലയാളത്തിലെ പല വാക്യങ്ങള് നമ്മള് ഉപയോഗിക്കാറുണ്ട് ഒരുപാട് പദപ്രയോഗങ്ങള് നമ്മള് നടത്താറുണ്ട് അങ്ങനെ പൊതുവായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അപ്പോള് പിന്നെ ഓ അതല്ലേ അങ്ങനെയല്ലേ അങ്ങനെ കുറച്ച് പൊതുവായിട്ടുള്ള പദപ്രയോഗങ്ങളെല്ലാ സംഭാഷണങ്ങളിലും എല്ലാവരും ഉപയോഗിക്കുന്നതാണ്